കേരളത്തിൽ ഞങ്ങളുടെ ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ അനേകം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഞങ്ങളുടെ ഏറിയാന്നെച്ചാൽ പുനലൂരാണ് കൊല്ലം ജില്ലയിൽ പുനലൂരിൽ തെമ്മല എന്ന സ്ഥലത്ത് സെമ്മല ഡാമൊണ്ട് ഇക്കോ ടൂറിസവൊണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അവിടുത്തേക്ക് പിന്നെ ഞങ്ങളുടെ നമ്മുടെ കേരളത്തോടടുത്ത് കിടക്കുന്ന കുറ്റാലമുണ്ട് കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ അനേകം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് അങ്ങനെ നല്ല രീതീലുള്ളൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഞങ്ങടെയീ കൊല്ലം ഡിസ്ട്രിക്ക്

ഇത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് ആറ് മാസം ചൂടും ആറ് മാസം മഴയുമാണല്ലോ മഴക്കാലത്തക്കെ ടൂറിസ്റ്റുകൾ വളരെ കുറവ് അങ്ങനെ പോകാൻ വേണ്ടി വലിയ പ്രയാസമാണ് അതിനാൽ കൂടുതൽ പേരും മൺസൂൺ കാലത്ത് പോവാറില്ല സാധാരണ വെയിലുള്ള സമയത്താണ് ഇവിടങ്ങളിൽ ധാരാളം പോകുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതിനാൽ ഈ സമയങ്ങളിലെല്ലാവരും ടൂറിസ്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട് ഓക്കെ താങ്ക് യൂ